അതു കൃത്യം ഇപ്പം പല പ്രായത്തിലും കഴിവിലും പശ്ചാത്തലത്തിലുമുള്ള ആളുകൾക്ക് യോഗ നന്നായിത്തന്നെ പ്രയോജനം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ വ്യത്യസ്ത പ്രായം ഇപ്പൊരു പ്രായം കൂടിയ മനുഷ്യനാണെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ യോഗ ചെയ്യുന്നത് പിന്നെ ആൾക്കത് ചെയ്യാനുള്ള കഴിവ് അതായത് ആൾക്കതിനോടുള്ള ഒരു താത്പര്യം ഇപ്പോൾ ഒരു യോഗാസനമാണെങ്കിൽ അതിപ്പോൾ ശവാസനമായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തെ മുറകളായാലും നമുക്ക് ഒരു വട്ടം ചെയ്യാൻ പറയുന്നത് അയാളുടെ പ്രായം അനുസരിച്ച് ചിലപ്പോൾ അയാൾക്ക് രണ്ടു വട്ടം മൂന്നു വെട്ടോ ചെയ്യാൻ തോന്നൊള്ളോ പിന്നെ അയാളുടെ കഴിവ് അതായത് അയാൾക്കതിനോടുള്ള താത്പര്യം ഇതൊക്കെ അനുസരിച്ചു ചിലപ്പം അയാളുടെ ഒരു വട്ടം ചെയ്തതെന്നു വരൂള്ളു പക്ഷെ എങ്കിലും അത് ചെയ്യുമ്പോൾ ആൾക്കത് ഉപകാരപ്പെടും അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇപ്പം വ്യത്യസ്ത പ്രായമായാലും കഴിവിലായാലും ഇപ്പം പശ്ചാത്തലം ചിലതുണ്ട് ചിലർക്ക് ടെ പശ്ചാത്തലം എന്നു ഉദ്ദേശിക്കുന്നത് അയാൾ വരുന്ന സാഹചര്യം ചിലപ്പോൾ അയാൾക്ക് അതു ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എങ്കിലും അയാളത് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അതു വ്യത്യസ്ഥ തരത്തിൽ അതു പല തരത്തിലും എനിക്കു തോന്നുന്നു അതു നന്നായിത്തന്നെ പ്രയോജനപ്പെടുമെന്നു തന്നെയാണ് എനിക്കു തോന്നുന്നത് കാരണം യോഗാ എന്നു പറയണ കാര്യം എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യമാണ് അതു ശാരീരികമായും മാനസ്സികമായും ബുദ്ധിപരമായും എല്ലാ കഴിവുകളും എല്ലാറ്റിനും മനസ്സിന് എല്ലാത്തര ഉണർവ്വും തരുന്നൊരു ആയോധന മുറയാണ് ഈ യോഗ അപ്പം എനിക്ക് തോന്നുണു അതിപ്പം ഏത് പ്രായ ഭേദമെന്യെ നമുക്ക് ചെയ്യാം അതിപ്പം കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ ഒരു വ്യക്തിക്കിപ്പോൾ കുറച്ച് കഴിവുണ്ടായിരിക്കുകയുള്ളു അതായതിപ്പോൾ അയാൾക്ക് അധികനേരം കാലു മടക്കി ഇരിക്കാൻ പറ്റില്ല ചിലപ്പോൾ കാലിനു മടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും അല്ലെങ്കിൽ കാല് മുറിഞ്ഞു പോയവരാകാം പല സാഹചര്യവും കഴിവും ഇല്ലാത്തവരായിരിക്കാം പക്ഷെ എങ്കിലും അവരെക്കൊണ്ട് അതു ചെയ്യുമ്പോൾ അയ് അവർക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും അതായത് മനസ്സിനോ ശരീരത്തിനോ ഏതെങ്കിലും തരത്തിൽ അത് ഗുണം ചെയ്യും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതു നന്നായിത്തന്നെ പ്രയോജനപ്പെടും എന്നു തന്നെയാണ് അവർക്ക് എനിക്ക് തോന്നുന്നത് കാരണം അത് ഇപ്പം രാ ഇപ്പം പ്രായം വല്ലാതെ പ്രായമുള്ളൊരു വ്യക്തി ഇതു നന്നായി ചെയ്യുമ്പോൾ അയാളെ പ്രായം കുറയാണ് കാരണം അയാൾ മാനസ്സികമായി അയാൾ ചെറുപ്പക്കാരായി മാറും കാരണം മനസ്സിനെ ഇതു നന്നായി ബാ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു മനസ്സിനു നല്ലൊരു റിഫ്രെഷ്മെൻറ്റ് കൊടുക്കുന്നതു കൊണ്ട് അത് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ചെയ്യാനായിട്ട് ചെയ്താൽ ആ വ്യക്തിക്ക് പ്രായം നന്നായിട്ട് കുറഞ്ഞു വരാനായിട്ട് സാധിക്കില്ലെ ഇപ്പോൾ പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണെന്നെനിയ്ക്ക് അയാൾക്ക് ആ പ്രായ ആ പ്രായത്തിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അയാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊരു പ്രശ്നത്തെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം ഒരു വലിയ പ്രശ്നാ ചെറിയ കൊച്ചായാൽപ്പോലും അതിനെ എങ്ങനെ നേരിടാമെന്ന് അവരതിൽ കാണിച്ചു കൊടുക്കാനും നമുക്ക് മനസ്സിനു നല്ലൊരു സ് എന്താ പറയുക ഒരുന്മേഷം തരും ഇനി അതുപോലെ ഉറക്കക്കുറവ് അതിപ്പോൾ എല്ലാവരിലും വരണതാണ് അതുപോലെ ഡിപ്രഷൻ പക്ഷെ അതിനെയൊക്കെ ഭയങ്കര വ്യത്യാസാ ഞാൻ നോക്കാണെങ്കിൽ നല്ല ഉറക്കക്കുള്ള കുറവുള്ളവർക്ക് ഇതു ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭേദമുണ്ട് അതായത് അവരുടെ മനസ്സിന് ആ അതായത് ചിലർക്ക് ചില ടെൻഷനുകൾ കൊണ്ടായിരിക്കാം ഈ ഉറക്കക്കുറവ് വരണത് അപ്പം ആ ടെൻഷനെ കുറയ്ക്കാനായിട്ട് ഈ യോഗയ്ക്ക് സാധിക്കും അപ്പോൾ അതു മനസ്സിനെ നന്നായിട്ട് ബാധിക്കും ന മനസ്സിനെ നന്നായിട്ട് റിഫ്രഷ് ചെയ്ത് ആ വ്യക്തിയ്ക്ക് ഉറക്കം കൊടുക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഉറക്കം കൂടുതലുകളുണ്ട് അതായത് ഈ ഒരു മത്തു പിടിച്ചു മന് അലസത കൊണ്ട് വരുന്ന ഏതു നേരവും ഉറങ്ങാൻ തോരുന്ന ആ വ്യക്തികൾക്ക് അതനുസരിച്ച് ചെയ്യുമ്പോൾ യോഗ ചെയ്യുമ്പോൾ അവരുടെ മനസ്സും അതോർക്കുമ്പോൾ അവരും അതനുസരിച്ച് ചെർപ്പായി വരും അവരുടെ മനസ്സിനു നല്ല സുഖം കിട്ടും അപ്പം അതെനിക്ക് തോന്നുന്ന എൻ്റെ അഭിപ്രായം വെച്ചു തോന്നാണെങ്കിൽ വ്യത്യസ്ത പ്രായമായാലും കഴിവായാലും അതു പലതരത്തിലും പ്രയോജനപ്പെട്ട് അവർക്കത് ഉപകാരപ്പെടും എന്നാണ് എനിക്കു തോന്നുന്നത്